ഇതാരാടാ ഫോണിൽ രണ്ട് മിനിറ്റ് ഹലോ

സാറിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ മാസം റെന്റിന് അല്ലേ സ്ഥലം നോക്കി ആ ഓക്കെ അല്ല ഞാൻ ചോദിച്ചത് ഒരു കൊല്ലത്തേക്കെന്ന് അല്ലേ പറഞ്ഞത് അതാണ് ഞാൻ ചോദിച്ചത് റെന്റിന് ആണോ എന്ന്

ആ റെന്റ് ആയിട്ട് എടുക്കുന്നത് ആയിരിക്കും സാറിന് ബെറ്റർ കാരണം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് സാർ കുറേ ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ റെന്റ് എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് കോഴിക്കോട് ഏകദേശം ടൗണിൽ ഒക്കെ ആയിട്ട് ആണെങ്കിൽ പെർ മന്ത് ഒരു എയിറ്റ് തൗസൻഡ് റുപ്പീസിലൊക്കെ നമുക്ക് വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും ഒരെണ്ണം കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഉണ്ടാവും പിന്നെ ഒരു ഹാൾ കിച്ചൺ പിന്നെ ഒരു സിറ്റൗട്ട് സ്കൂൾ എങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആണോ ആ നമുക്ക് പബ്ലിക് സ്കൂളും വരുന്നുണ്ട് ഗവൺമെൻറ്റ് സ്കൂളും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ആ അതിൻ്റെ അടുത്തുതന്നെ ആയിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് സെക്യൂരിറ്റി ആയിട്ടൊരു തെർട്ടീൻ തൗസന്റ് ഒക്കെ പേ ചെയ്യേണ്ടി വരും ആ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീട് ഒഴിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് റിട്ടേൺ കിട്ടും ആ ആ പൈസ റിട്ടേൺ തരും അതായത് നാച്ചുറൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും കുഴപ്പം ആണെങ്കിൽ നമുക്ക് അത് ഒന്നും ചെയ്യേണ്ടി വരില്ല അല്ലാണ്ട് നിങ്ങൾ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുവാണെങ്കിൽ അതിന് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും

കറക്റ്റ് നമുക്ക് കോഴിക്കോട് തന്നെ ആണ് ടൗണിൽ തന്നെ വരുന്നുണ്ട് ആ മിട്ടായി തെരുവിൽ നിന്ന് കുറച്ച് അപ്പുറം മാറിയിട്ടാണ് ഇപ്പം മാറി ആ ഓക്കെ നമുക്ക് വേണമെങ്കിൽ സാറിന് പറ്റുന്ന പോലെ നമുക്ക് മാറ്റി ഒക്കെ ചെയ്തുതരാൻ പറ്റും പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ അടുത്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആണ് നമ്മൾ അത് പറഞ്ഞത് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞങ്ങൾ സാറിൻ്റെ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉണ്ടോ ആ ഓക്കെ അപ്പം നമ്മൾ ഉള്ള വീടുകളുടെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് സാറിന് വാട്ട്സ്ആപ്പ് ചെയ്തുതരാം സാർ എന്നിട്ട് അതിൽനിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് പറയുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ആ ആയിക്കോട്ടെ ആ എന്നാൽ ഇപ്പം വാട്ട്സ്ആപ്പ് ചെയ്തേക്ക് സാർ ആ ഓക്കെ സാർ